കുട്ടികൾക്ക് ക്രമമായിട്ട് സ്കൂളിൽ പോകാൻ സാധിക്കാത്തതിൻ്റെ പ്രധാന കാരണം എന്നു പറഞ്ഞാൽ അവർക്ക് യാത്രാ സൗകര്യങ്ങൾ ഇല്ലാത്തതാണ് അ പല പല പലരുടെയും വീടുകൾ അവരുടെ വീടിന് അടുത്തായിട്ട് സ്കൂളുകളിൽ ഇല്ലാത്തത് തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണമാണ് കുട്ടികൾക്ക് വളരെ ദൂരം സഞ്ചരിച്ചു വേണം സ്കൂളിൽ എത്താനായിട്ടും അപ്പം സ്വാഭാവികമായിട്ടും കുട്ടികൾ സ്കൂളുകളിൽ പോകാനായിട്ട് മടിക്കാറുണ്ട് അതുപോലെ തന്നെ വീട്ടിൽ സഹായിക്കേണ്ടതായിട്ട് വീട്ടിൽ മറ്റു കാര്യങ്ങൾ ചെയ്യാനായിട്ട് ആളുകളില്ലാതെ വരുമ്പോൾ അല്ലെങ്കിൽ കുട്ടികളെ അതിൻ്റെ താഴെയുള്ള കുഞ്ഞു കുട്ടികളെയൊക്കെ അവരെ നോക്കാനായിട്ട് ആളുകൾ ഇല്ല മാതാപിതാക്കൾക്ക് ജോലിക്കായിട്ട് പോകേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ അവർ പഠനം ഒഴിവാക്കാറുണ്ട് പലപ്പോഴും അതുപോലെ കാലാവസ്ഥയുടെ ഉദയഗിരി പോലെയുള്ള പ്രത്യേക സ്ഥലങ്ങളിലൊക്കെ കാലാവസ്ഥ കുട്ടികളെ എന്നും മഞ്ഞും തണുപ്പുമൊക്കെ ആയതുകൊണ്ട് കുട്ടികൾക്ക് സ്കൂളിൽ എത്താനോ പഠിക്കാനോ പലപ്പോഴും സാധിക്കാറില്ല കുട്ടികൾ രോഗം രോഗത്തിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഈ കാലാവസ്ഥയുടെ പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ കാലാവസ്ഥ മാറി മാറി വരുന്ന കാലാവസ്ഥകൾ കുട്ടികളെ രോഗത്തിൽ നിന്നു രോഗം രോഗ രോഗം ഉണ്ടാവാനായിട്ട് കാരണമാകുന്നുണ്ട് അപ്പം പല പല തരത്തിലുള്ള ഇടവെട്ട് ഇടവെട്ട് പനിയും ചുമയും ചില ദോഷമൊക്കെ മൂലം പല കുട്ടികളും ക്രമമായിട്ട് സ്കൂളിൽ എത്തുന്നില്ല ആ അതു മാത്രമല്ല ആദിവാസി വിഭാഗത്തിൽ പെട്ട കുട്ടികളൊക്കെ ആണെങ്കിൽ അവർ താഴെയുള്ള കുട്ടികളെ നോക്കിയും അതുപോലെ മറ്റ് ആ അവർ തന്നെ സ്വന്തമായിട്ട് കൃഷി ഇടങ്ങളിലെ കൃഷിസ്ഥലങ്ങളിലേക്ക് പോയി കൃഷി ചെയ്യാനൊക്കെ ആയിട്ട് പോകുന്നതു കൊണ്ട് ആ കുട്ടികൾ ക്രമമായിട്ട് സ്കൂളിൽ എത്താൻ പലപ്പോഴും സാധിക്കുന്നില്ല കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് മാതാപിതാക്കൾ ഒരു ഒരു പ്രാധാന്യം കൊടുക്കാതെ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട കുട്ടികളുടെ ഒക്കെ ആണെങ്കിലും ഒരു മാതാവ് മാതാപിതാക്കൾ അതിന് പ്രാധാന്യം കൊടുക്കാതിരിക്കുകയും കുട്ടികൾ ഏതെങ്കിലുമൊക്കെ തരത്തിൽ സ്കൂളിൽ വന്നാൽ തന്നെയും അവർക്ക് പിന്നീട് തുടർന്ന് പഠിച്ചു കൊണ്ട് പോകാനുള്ള സാഹചര്യം മാതാപിതാക്കൾ ഒരുക്കി കൊടുക്കാതിരിക്കുകയും ചെയ്യാറുണ്ട് ആ കുട്ടികൾക്ക് പിന്നീട് പെൺകുട്ടികളൊക്കെ ആണെങ്കിലും അവരെ വിവാഹം കഴിച്ചു കഴിപ്പിച്ചു അയക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് പിന്നീട് പഠിക്കാനായിട്ടുള്ള സാഹചര്യങ്ങൾ ഇല്ലാതെ പോകുന്നുണ്ട് മാതാപിതാക്കൾ ആദിവാസി വിഭാഗത്തിൽ പെട്ട കുട്ടികൾ അതിൽ അവർ പലപ്പോഴും കാടുകളിൽ ഒക്കെ ഉൾക്കാടുകളിലൊക്കെ താമസിക്കുമ്പോൾ അവരുടെ വിദ്യാഭ്യാസത്തിന് മാതാപിതാക്കളും പ്രത്യേകം ശ്രദ്ധിക്കാതെ പോകുമ്പോൾ പോകുമ്പോൾ ഈ കുട്ടികൾക്ക് തുടർച്ചയായിട്ട് ക്ലാസ്സുകളിൽ വരാനായിട്ട് സാധിക്കാതെ പോകുന്നതു കൊണ്ട് കുറച്ചു നാളുകൾ സ്കൂളിൽ വരികയും പിന്നീട് അവർ ഏതെങ്കിലുമൊക്കെ ഹോസ്റ്റലിൽ നിന്നു വരികയും പിന്നീട് അവർ വീട്ടിലേക്ക് അവധിക്കൊക്കെ ആയിട്ട് പോവുമ്പോൾ അവർ പിന്നീട് തിരിച്ചു കൊണ്ട് വിടാനായിട്ട് മാതാപിതാക്കളും പലപ്പോഴും ശ്രദ്ധിക്കാറില്ല അവർ കുട്ടികളെ പെൺകുട്ടികളെ പ്രത്യേകിച്ചു വിവാഹം കഴിപ്പിച്ചു അയക്കുകയും ആൺകുട്ടികൾ പലപ്പോഴും അവരുടെ ആ കാട് കാട്ടും കാടും അതുപോലെ തന്നെ കൃഷിയൊക്കെ ആയിട്ട് ജീവിക്കാനായിട്ട് പലപ്പോഴും ശ്രമിക്കാറുണ്ട് അതുകൊണ്ട് ഈ കുട്ടികൾ സ്കൂളിലേക്ക് തിരികെ എത്താനായിട്ട് പലപ്പോഴും അതിനുള്ള സമയം അവർ അവസരം അവർ കണ്ടെത്തുന്നില്ല പിന്നീട് അധ്യാപകരുടെ നേതൃത്വത്തിൽ അവരെ പോയി കൊണ്ടു വരികയും എങ്കിലും അവർ രാത്രി സമയങ്ങളിലൊക്കെ ആണെങ്കിലും അവസരം കിട്ടുമ്പോഴെല്ലാം അവർ ആയിരിക്കും സ്ഥലങ്ങളിൽ നിന്ന് ഒരു ഓടിപ്പോയി ആ അവരുടെ സ്ഥലത്തേക്ക് എത്താനായിട്ടാണ് അവർ പലപ്പോഴും ശ്രദ്ധിക്കുക വിദ്യ അതിന് ഒരു പ്രധാനപ്പെട്ട കാരണം വിദ്യാഭ്യാസം കൊണ്ട് എന്തെങ്കിലും തങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനം ഉണ്ട് എന്നു അവർ മനസ്സിലാക്കാതെ പോകുമ്പോഴാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പലപ്പോഴും സംഭവിക്കാം കുട്ടികൾക്ക് അതുപോലെ തന്നെ ദൂരം ദൂരം ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് കുടിലുകളിലും മറ്റും താമസിക്കുന്ന കുട്ടികൾക്ക് ഈ ഉൾക്കാട്ട് കാടുകളിൽ ഇവർ താമസിക്കുമ്പോൾ പലപ്പോഴും ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ആയിരിക്കും സ്കൂളുകൾ ആ സ്ഥലത്തേക്ക് എത്താനായിട്ടുള്ള വേണ്ട സൗകര്യങ്ങൾ അവർക്ക് കിട്ടാറില്ല കുട്ടികൾ ഏറെ ദൂരം നടന്നു ക്ഷീണിച്ചു വേണം ഈ സ്കൂളിൽ എത്താനായിട്ട് സർക്കാർ സംവിധാനങ്ങൾ ഈ കുട്ടികൾക്ക് വേണ്ടി ത്രസാരതി പോലുള്ള പല സംവിധാനങ്ങളും ഒരുക്കുന്നുണ്ടെങ്കിലും പലപ്പോഴും അത് ഒരു ക്രമമായിട്ട് അതിൻ്റെ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകാനായിട്ട് ആരും ശ്രദ്ധിക്കുന്നില്ല ഒന്നോ രണ്ടോ മാസങ്ങളിൽ മാത്രം സ്കൂൾ തുറക്കുന്ന മാസങ്ങിൽ മാത്രം പലപ്പോഴും ഈ ഗോത്ര സാരധിയുടെ സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് പിന്നീട് അത് അവർ അത് പല വിധ കാരണങ്ങൾ അത് ഓടിക്കാനായിട്ട് വണ്ടികളൊക്കെ ആണെങ്കിലും ഓടിക്കാനായിട്ട് ഡ്രൈവർമാരെ കിട്ടുന്നില്ല എന്നുള്ളതിൻ്റെ കാരണത്തിൻ്റെ പേരിൽ അവരെ ഈ വാഹന സൗകര്യങ്ങളൊക്കെ നിർത്തി കളയാറുണ്ട് അതുപോലെ ഗോത്രസാരധിയിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ഫണ്ടുകൾ ലഭിക്കാതെ വരുമ്പോൾ ആളുകൾ അത് ഉപേക്ഷിച്ചു ആ ഈ ജോലിക്കായിട്ട് എത്തുന്ന ആളുകൾ ഈ വാഹനം ഓടിക്കാനായിട്ട് എത്തുന്ന ആളുകൾ അത് ഉപേക്ഷിച്ചു പോവാറുണ്ട് അതു മാത്രമല്ല ഇവരുടെ വണ്ടിയുടെ വാഹനങ്ങളുടെ കംപ്ലൈൻ്റുകൾ വരുമ്പോൾ അത് ഇട്ടിട്ട് പോകാനായിട്ട് സാധ്യതയുണ്ട് അത് തുടരുന്ന വഴി ഈ വാഹനങ്ങൾ ഒന്ന് ഓടിച്ചു കൊണ്ട് പോകാനായിട്ട് അതിൻ്റെ പലപ്പോഴും യന്ത്രങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചും ഒക്കെ അതൊന്നും മെയിൻ്റൈനൻസ് ചെയ്തുകൊണ്ടു പോവാനായിട്ടോ പലപ്പോഴും പറ്റാറില്ല അതുകൊണ്ട് തന്നെ ഈ ഗോത്രസാരഥി പദ്ധതിയൊക്കെ പലപ്പോഴും നിന്നു പോകുന്നുണ്ട് അപ്പം കുട്ടികൾക്ക് വേണ്ട വിധത്തിൽ അത് ഒരു അവർക്ക് ഒരു സഹായമാകുന്നില്ല അതുമാത്രമല്ല ചില കുട്ടികളൊക്കെ വീട്ടിൽ സഹായിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് പ്രായമായിട്ട് പ്രായമായിട്ടുള്ള മാതാപിതാക്കളേക്കാൾ ഉപരി ജോലിക്ക് പോവേണ്ട മാതാപിതാക്കളും അവർക്ക് താഴെ ഈ മൂത്ത കുട്ടികളൊക്കെ ആണെങ്കിൽ അവരുടെ താഴെ ഉള്ള കുട്ടികളെ സംരക്ഷിക്കേണ്ടതായിട്ട് അവരെ നോക്കേണ്ടതായിട്ടുള്ള കടമകളൊക്കെ വരുമ്പോൾ ഈ കുട്ടികൾക്ക് ഈ കുഞ്ഞിനെ നോക്കേണ്ട അവസ്ഥ വരുമ്പോൾ അവർക്ക് ഈ ഇതെല്ലാം ഉപേക്ഷിച്ചു പോകേണ്ടതായിട്ടുള്ള സാധ്യതകൾ വരുന്നുണ്ട് അപ്പം അതൊക്കെ മൂലം അവർ പലപ്പോഴും ഇങ്ങനെയുള്ള സ്കൂൾ സ്കൂളിലേക്ക് സ്കൂൾ അവർ ഒരു ക്രമമായിട്ട് തന്നെ എല്ലാ ദിവസവും സ്കൂളിലെത്താനായിട്ട് അവർ പലപ്പോഴും ശ്രദ്ധിക്കാറില്ല ഇനിയുള്ള സാഹചര്യങ്ങളും പലതും കാരണമാണ് കുട്ടികളുടെ സ്കൂളിൽ പോക്ക് നഷ്ടപ്പെടുന്നത് അതുപോലെ കാലാവസ്ഥ കാലാവസ്ഥ പ്രതികൂലമായിട്ട് മഴയും കാറ്റൊക്കെ ഉള്ളപ്പോൾ അതുപോലെ ഉൾക്കാടുകളിൽ അപ്പം യാത്രാ സൗകര്യങ്ങൾ പുഴയുടെ പുഴയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ആറൊക്കെയുള്ള സ്ഥലങ്ങളിൽ വേണ്ട യാത്രാ സൗകര്യങ്ങൾ പാലം ചിലപ്പോൾ ഉണ്ടായെന്ന് വരത്തില്ല അതുപോലെ മറ്റ് ആ പുഴ കടന്നു വരേണ്ട കുട്ടികളാണെങ്കിൽ അവർക്ക് എന്താണ് അവർക്ക് വള്ളങ്ങളോ അങ്ങനെയുള്ള ചങ്ങാടമോ ഒന്നും ഇല്ല അപ്പോൾ സങ്കടകടങ്ങളേക്കാൾ ഉപരി അവർക്ക് ഒരു യാത്രാ സൗകര്യത്തിന് പാലമൊക്കെ പണിത് നൽകുകയാണെങ്കിൽ സർക്കാർ എന്നാണ് സാധിക്കത്തുള്ളൂ അത് പണിത് നൽകാത്തപ്പോൾ ആ കുട്ടികൾക്ക് ഇങ്ങനെ തനിയെ ഇടാൻ അവർക്ക് മാതാപിതാക്കൾക്ക് തന്നെ ബുദ്ധിമുട്ടുണ്ട് കാരണം ഈ കുട്ടികൾ എല്ലാ സമയത്തും ഈ കുട്ടികളെ നോക്കി നിൽക്കുക എന്ന് പറയുന്നത് മാതാപിതാക്കൾക്ക് ബുദ്ധിമുട്ടാണ് അവർ ഇപ്പോൾ അങ്ങനെയുള്ള സാഹചര്യം ആരും കൊണ്ടു വിടാൻ കുട്ടികളെ സ്കൂളിൽ എത്തിക്കാനില്ല എന്ന കാരണത്താൽ മാതാപിതാക്കൾ കുട്ടികളെ സ്കൂളിൽ വിടാതിരിപ്പുണ്ട് അതൊരു പ്രധാനപ്പെട്ട കാരണമാണ് അതുപോലെ തന്നെ പണം ഇല്ലാത്തതിൻ്റെ ഈ ഇതെല്ലാം എല്ലാ കാര്യം സ്കൂളിലെ സ്കൂളിൽ പ്രത്യേകിച്ചു പൈസയുടെ ആവശ്യം ഇല്ലെങ്കിൽ പോലും കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള പഠനോപകരണങ്ങൾ വാങ്ങാനായിട്ട് പലപ്പോഴും പടം ഇല്ലാതെ വരുന്നുണ്ട് വേണ്ടത്ര ആളുകൾക്ക് മാതാപിതാക്കൾക്ക് ക്രമമായിട്ട് ജോലി ഇല്ലാതിരിക്കുക അല്ലെങ്കിൽ ഒരു വരുമാന മാർഗം കണ്ടെത്താനായിട്ട് സാധിക്കാതെ വരുമ്പോൾ ഈ കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് കുട്ടികളുടെ പഠന ചെലവുകൾ വഹിക്കാനായിട്ട് അവർക്ക് പണം ഇല്ലാതെ വരുന്നുണ്ട് അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിച്ചും പണം അവർക്ക് ഒരു ഫ്രീ ആയിട്ടുള്ള വിദ്യാഭ്യാസം എന്ന് പറയുമ്പോഴും കുട്ടികൾക്ക് ബാഗ് വേണം കുട വേണം അതുപോലെ മറ്റ് പഠന ഉപകരണങ്ങൾ അത് വാങ്ങിക്കാനായിട്ട് പൈസ ഇല്ലാതിരിക്കുക എന്നു പറയുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ് അപ്പം അത് അതിൻ്റെ പേരിൽ കുട്ടികൾ സ്കൂളിൽ വരാതിരിപ്പ് ഉണ്ട് അതുപോലെ തന്നെ അവർക്ക് വസ്ത്രങ്ങളിൽ ഇല്ലാതിരിക്കുക മറ്റു കുട്ടികൾ ഇട്ടുകൊണ്ട് വരുന്ന പോലെയൊക്കെ തന്നെ കുട്ടികളാവുമ്പോൾ അതൊക്കെ ശ്രദ്ധിക്കും ആ മറ്റു കുട്ടിക്കളിയുണ്ട് വരുന്നത് പോലെ വസ്ത്രങ്ങളില്ലാതെ അത് വാങ്ങിക്കാനായിട്ട് പൈസ ഇല്ലാത വരുമ്പോ ആ ഒരു നാണക്കേട് ഒഴിവാക്കാനായിട്ട് കുട്ടികൾ പലപ്പോഴും സ്കൂളിൽ പോക്ക് ഒഴിവാക്കാറുണ്ട് യൂണിഫോം സർക്കാരിൽ നിന്ന് ലഭിക്കുമെങ്കിലും അത് തയ്ച്ചെടുക്കാനുള്ള പണം പലപ്പോഴും കുട്ടികൾക്ക് ലഭിക്കുന്നില്ലാത്തത് കൊണ്ട് ഈ തയ്ച്ചെടുത്ത യൂണിഫോം തയ്ക്കാനുള്ള അല്ലെങ്കിൽ അത് ഒരു ജോഡിയൊക്കെ കീറിപ്പോയി കഴിയുമ്പോൾ പിന്നീട് അത് മറ്റു കുട്ടികളോടൊപ്പം ഇട്ടു കൊണ്ട് വരിക അല്ലെങ്കിൽ അത് നാണക്കേട് അല്ലെങ്കിൽ ചെറുതായി കഴിയുമ്പോൾ നാണക്കേടൊക്കെ മൂലം അവർ കുട്ടികൾ സ്കൂളിൽ വരാതിരിക്കുന്നുണ്ട് പ്രധാനമായിട്ടും ഈ മാതാപിതാക്കളുടെ ഒരു ശ്രദ്ധക്കുറവ് ഈ കുട്ടികളുടെ മേൽ ഉണ്ടാവുമ്പോഴാണ് ശരിക്കും അത് കൃത്യമായിട്ട് മാതാപിതാക്കൾ ശ്രദ്ധിക്കാതിരിക്കുന്നത് മൂലമാണ് ഈ ഈ കുട്ടികൾക്ക് പഠിക്കാനായിട്ടുള്ള അവസരങ്ങൾ നിഷേധിക്കപ്പെടുക അല്ലെങ്കിൽ ക്രമമായിട്ട് വരാൻ വരാനായിട്ട് അവർക്ക് സാധിക്കാതെ വരുന്നത് മാതാപിതാക്കൾ എന്ത് ത്യാഗം സഹിച്ചു കുട്ടികളെ വിടാനായിട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ കുട്ടികൾ കുറച്ചു കൂടെ ഒരു ക്രമമായിട്ട് അല്ല കൃത്യമായിട്ട് സ്കൂളിൽ വരാനായിട്ട് ശ്രദ്ധിക്കും അതുമാത്രം അല്ല ഈ മാതപിതാക്കൾ പണിയാനും പണികൾകൊക്കെ ആയിട്ട് പോയി കഴിയുമ്പോൾ കുട്ടികൾ മാത്രമായിരിക്കും ചില മിക്കവാറും വീട്ടിലുണ്ടാവുക അപ്പം ആ കുട്ടികൾ ആ ആ അവർ പോകാതിരിക്കുന്നുണ്ട് പക്ഷേ അത് ആ രക്ഷിതാക്കൾ അതിനെ കുറിച്ച് ഒരു ഒരു ബോധ്യം അവർക്ക് ഉണ്ടാവാറില്ല അവർ വിചാരിക്കും കുട്ടികൾ സ്കൂളിൽ പോയിട്ടുണ്ടെന്ന് വിചാരിക്കും പക്ഷെ കുട്ടികൾ സ്കൂളിൽ പോകുന്നു എന്ന് അവർ പിന്നീടാണ് മാതാപിതാക്കൾ ആദ്യം തന്നെ അതിരാവിലെ തന്നെ വിവിധ പണികൾക്കായിട്ട് പോകുമ്പോൾ ഈ കുട്ടികളെ ആ ഒരുക്കി വിടാനോ അല്ലെങ്കിൽ ഒരുക്കി വിടാൻ അവർ ശ്രദ്ധിക്കുക ചിലപ്പോഴൊക്കെ ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട് അപ്പം ചിലപ്പോഴൊക്കെ ഒരുക്കി നിർത്തിയതിന് ശേഷവും കുട്ടികൾ സ്കൂളിൽ പോവാതിരിക്കുന്ന ഒരു കാര്യം കൂടെ സംഭവിക്കാറുണ്ട് അപ്പം ഇതെല്ലാം കുട്ടികൾ ക്രമമായിട്ട് സ്കൂളിൽ വന്നു ആ വരാനായിട്ട് കഴിയാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളാണ്